ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വാട്സ്ആപ്പ് ഗൂഗ്ള് പിന്നെ യൂട്യൂബ് ഇതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൂന്ന് സ്മാർട്ട് ഫോണിങ്ങിൽ നിന്നും പിന്നെ നല്ല കാര്യങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട് ഇപ്പം സന്ദേശങ്ങളാണേലും ആൾക്കാരിൽ നിന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാണേലും സ്മാർട്ട് ഫോണുകൾ നമുക്ക് വളരെ പ്രയോജനമാണ് അതേസമയം കുട്ടികളിലത് അമിതമായ ഉപയോഗം മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അത് ദോഷഫലങ്ങൾ അതിൻറ്റാത്തൂന്നുണ്ടാക്കുന്നു പിന്നെ ഈ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നില്ല ഒരു ഒരു കാര്യം നമുക്ക് ഒരു കറി അല്ലേ ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു ഒരു കറി ഉണ്ടാക്കണം അല്ലേൽ ഒരു ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് പിന്നെ പിന്നെ യൂട്യൂബിലോട്ട് നോക്കി അത് ചെയ്തു അങ്ങനെയൊക്കെയുള്ള പെട്ടന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്കത് വളരെ പ്രയോജനകരമാണ് അതുപോലെ തന്നെ വാട്സാപ്പിലാണേലും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഒക്കെ ഇപ്പോൾ പിന്നെ സൗകര്യപ്രദമായി ഇട്ട് ഉണ്ട്